ഞങ്ങളുടെ ഈ പ്രദേശത്ത് വിനോദ സഞ്ചാകാരികൾ എത്തിച്ചേരുന്നത് അവരുടെ ടാക്സികളിലാണ് അല്ലെങ്കിൽ സ്വന്തമായി അവർ വണ്ടി വിളിച്ചു അവരുടെ വണ്ടിയിലും വരാറുണ്ട് ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് നെയ്യാര് ഡാമുണ്ട് അതുപോലെ ആനക്കുളമുണ്ട് അങ്ങനെ ഇവിടെ കരിമങ്കുളമുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവിടെ ഞങ്ങൾ ബോട്ടിൽ ഇവിടെ നിന്ന് അക്കരയ്ക്ക് ആള്ക്കാർ പോകാറുണ്ട് പിന്നെ വനം വനത്തിലോട്ട് പോയാൽ ഒരുപാട് ഉള്വനങ്ങളിൽ ഞമക്ക് ആള്ക്കാര്ക്ക് വിനോദത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിങ്ങനെ നടന്നു പോകണം അങ്ങോട്ട് വാഹന സൗകര്യമില്ല പിന്നെ നെയ്യാര് ഡാമിലാണെങ്കിൽ നമ്മൾക്ക് ബോട്ടിങ്ങ് അങ്ങനെ പല പല വിനോദങ്ങളില് ഏര്പ്പെടാനുള്ള ഉപാധികളുണ്ട് പിന്നേ ബസ്സിന് ബസ്സിന് കേ എസ് ആര് ട്ടീ സി അങ്ങനെ ഗവണ്മെന്റിന്റെ ആണെങ്കിൽ കേ എസ് ആര് ട്ടീ സി ബസ്സിൽ വരാനെ സാധിക്കുകയുള്ളൂ അല്ലാതെ സ്വകാര്യ വാഹനങ്ങളിൽ ഇതുപോലെ ദൂരെ സ്ഥലത്ത് നിന്ന് വരുന്നവർ ഞങ്ങളെ ഈ പ്രദേശത്ത് എത്തിയതിന് ശേഷം ഇവിടെ നിന്ന് അവർ ഇവിടെ നിന്ന് ടാക്സ്സികളൊക്കെ വിളിച്ചു വന്നാൽ ഈ സ്ഥലം കാണാറുണ്ട് പിന്നെ ഒരുപാട് എല്ലാവര്ക്കും ഒത്തിരി ഇഷ്ടപ്പെടാവുന്നത് പോലെയുള്ള എന്റര്റ്റെയിൻമെൻ്റുകൾ ഒത്തിരിയുണ്ട് ഇവിടെ ഞങ്ങളുടെ ഈ പ്രദേശമെന്ന് പറയുന്നത് ഒരു വെള്ളത്താല് ചുറ്റപ്പെട്ട ഒത്തിരി സ്ഥലങ്ങളാണ് അത് കാണാനായിട്ട് ഒരുപാട് പേർ പുറത്തു നിന്ന് വരാറുണ്ട് പിന്നെ കുട്ടികളാണെങ്കിലും ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തോട്ട് പോയപ്പോൾ ഞാൻ ബസ് കാത്തു നിന്നപ്പോൾ അവിടെ ഒരു ടൂറിസ്റ്റിൽ ആള്ക്കാർ ഒരു ബസ്സിന് വന്നു ഇറങ്ങുന്നത് കണ്ടു അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ കോട്ടയത്തു നിന്ന് വന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങളുടെ ഈ പ്രദേശം കാണാന് വേണ്ടി കോട്ടയത്തു നിന്നൊക്കെ ഇഷ്ടം പോലെ ആള്ക്കാർ കുഞ്ഞുങ്ങളും എല്ലാവരും വരാറുണ്ട് അവർ അവിടെ നിന്ന് തന്നെ ടൂറിസ്റ്റ് ബസ് അറേഞ്ച് ചെയ്താണ് വന്നത് അപ്പം അവര്ക്ക് അത് അപ്പം അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളുമൊക്കെ ചോദിച്ചപ്പോൾ അതുപോലെ അതു പോലെ ഇച്ചിരി ഏറെ ആണ് എങ്കിലും ഈ പ്രദേശത്തെ കാഴ്ച്ചകൾ കാണാൻ വേണ്ടി ഒരുപാട് ആള്ക്കാർ വരാറുണ്ട് പിന്നെ കേ എസ ആര് ട്ടി സി മാത്രമേ ഗവണ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ആള്ക്കാര്ക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഉപാധി ഉള്ളു അല്ലാതെ ആള്ക്കാര്ക്ക് സംസ്ഥാന വകുപ്പിന്റെ അങ്ങനെ അങ്ങനെ വണ്ടികളോ വാഹനങ്ങളോ ഒന്നും സൗകര്യങ്ങളില്ല പിന്നെ നമുക്ക് ഡാമിലാണെങ്കിൽ ബോട്ടിങ്ങിനൊക്കെ ഗവണ്മെന്റിന്റെ തന്നെയാണ് സൗകര്യങ്ങൾ കിട്ടുന്നത് അവര്ക്ക് അവ അക്കരയിലുള്ള ലയണ്സ് പാര്ക്കും സഫാരി പാഋക്കുകളുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുവാനുള്ള സൗകര്യം അവര്ക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ അവര്ക്ക് അത് ഗവണ്മെൻ്റ് തന്നെ ചെയ്തിരിക്കുന്നതാണ് പിന്നെ നമുക്ക് അവിടെ കൂപ്പണൊക്കെ എടുത്തിട്ടു വേണം അക്കരയ്ക്ക് പോകാൻ വേണ്ടി അത് ഗവണ്മെന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയേക്കുന്നതാണ് പിന്നെ ഒരുപാട് എല്ലാ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ടൂറിസത്തിന് നല്ല ഫെസിലിറ്റിയാണ് കാടുകളും വനങ്ങളും മരങ്ങളും എല്ലാം കാണാനുള്ള സൗകര്യങ്ങള് ഉണ്ടായിരിക്കും